ആദ്യാലത്തൊക്കെ വസ്ത്രങ്ങള് കഴുകുവാനായിട്ട് ഞങ്ങള് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കിണറിന്റെ ഒക്കെ അവിടെ പോയി നിന്ന് കോരിയെടുത്ത് അവിടെ അലക്ക് കല്ലൊക്കെ കാണും അവിടെ ഞങ്ങള് തുണി അലക്കുക ഒക്കെയും പിന്നെ അടുത്ത് പാറയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി ഇടുകയും അങ്ങനെയൊക്കെയായിന്നു ഉണക്കി കൊണ്ടിരുന്നത് പിന്നെ മഴക്കാലമൊക്കെ ആകുമ്പഴത്തേനും ബുദ്ധിമുട്ടാകും എപ്പോഴും മഴ ആയത് കൊണ്ട് അതുണങ്ങാന് വളരെ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ വരുന്ന സമയത്ത് നമ്മള് അന ഏതെങ്കിലും ഒരു ഷീറ്റൊക്കെയിട്ട് ഒരു റൂമിലോ അല്ലെങ്കില് വെള്ളം വീഴാത്ത ഏതേലും ഒരു ചാർത്തിലോ ഒക്കെ കൊണ്ടോയിട്ടായിരുന്നു നമ്മള് ഉണങ്ങുന്നത് പിന്നെ ഇപ്പഴ് കുറെ ആൾക്കാരൊക്കെ ഇങ്ങനെ പുറത്ത് കൊണ്ടുപോയി അലക്കുകാരുടെ കയ്യിൽ അലക്കാൻ കൊടുക്കുകയും അവരത് അലക്കി ഉണക്കി നല്ല തേച്ച് നല്ല വൃത്തിയായിട്ട് നമുക്ക് തിരിച്ച് തരും അപ്പം അവർക്ക് ഒരു നിശ്ചിത തുക നമ്മള് കൊടുക്കണം അതനുസരിച്ച് അവര് അതിൻ്റെ പൈസ ഈടാക്കുന്നുണ്ടെന്നേയുള്ളു എന്നാലും നമുക്ക് നല്ല ഭംഗിയായിട്ട് അങ്ങനെ ചെയ്ത് തരും നമ്മുടെ ഈ കാലാവസ്ഥയില് രണ്ട് കാലാവസ്ഥയാണ് മെയിനായിട്ട് ഒന്ന് മൺസൂണ് മഴക്കാലം പിന്നെ വേനൽക്കാലം ആ കാലങ്ങളിലാണ് മഴക്കാലത്തെ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട് തുണി അലക്കാനും ഉണങ്ങാനുമൊക്കെ ആയിട്ട് പിന്നെ ഇപ്പം കാലം പുരോഗമിച്ചതോടെ എല്ലാവരും തന്നെ വാഷിംഗ് മെഷീനും അങ്ങനെയുള്ള സംവിധാനത്തിലേക്ക് മാറി അങ്ങനെ വരുമ്പഴ് നമുക്കിതേ പറ്റിയൊന്ന് അറിയേണ്ട ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അതിനകത്തിട്ട് നമുക്ക് അവര് അലക്കി പിഴിഞ്ഞ് ഉണങ്ങി അങ്ങനെ എടുക്കാനുള്ള സംവിധാനങ്ങൾ ആയിട്ടുണ്ട് പിന്നെ നമ്മളല്ലാതെ പോയി അലക്കുന്ന വെള്ളം കോരി ഒഴിച്ച് അല്ലെങ്കിൽ വെള്ളം ആറ്റിൽ നിന്നോ അല്ലെങ്കിൽ കിണറ്റിൽ നിന്നൊക്കെ കോരിയെടുത്ത് നമ്മള് അലക്കി ഉണങ്ങുന്ന വരുന്ന വെള്ളത്തിൻ്റെ ചെലവിനേക്കാളിലും വാഷിംഗ് മെഷിനുകളുടെ ഇതിലേക്ക് മാറിയപ്പഴത്തേക്കും നമുക്കധികം വെള്ളത്തിൻ്റെ ആവശ്യകത കുറഞ്ഞു ആ ഒരു ലിമിറ്റില് നമുക്ക് വെള്ളം മതിയാവും പിന്നെ നല്ല ക്ലീനായിട്ടും വൃത്തിയായിട്ടും ടെക്നോളജി വികസിച്ചതോടെ അലക്ക് എളുപ്പത്തിലായി പണ്ടുള്ളവരെ സംബന്ധിച്ച് നമുക്കിപ്പോൾ ഒരുപാട് സൗകര്യങ്ങളുണ്ട് അധികം വെള്ളം ചെലവാകുന്നില്ല എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നമുക്ക് നടത്താൻ പറ്റുന്നുണ്ട് നമ്മുടെ അധിക ആൾക്കാരൊക്കെയുള്ള വീടുകളിലാണെങ്കില് നമുക്ക് അധികം വെള്ളം ആവശ്യം വരും അതുപോലെ കുഞ്ഞുങ്ങളുള്ള വീട്ടിലാണെങ്കിലും വയസായവര് കിടക്കുന്നവര് കിടപ്പ് രോഗികള് പിന്നെ എന്നും ജോലിക്കൊക്കെ പോകുന്നവർക്കൊക്കെ എപ്പോഴും അലക്കേണ്ടതായ ഒരാവശ്യം വരുന്നുണ്ട് അവർക്ക് സ്ഥിരം രാവിലെ ഉപയോഗിച്ചിട്ട് വൈകിട്ടാകുമ്പത്തേക്ക് അവരത് മാറിയിടും അപ്പം നമ്മളത് ഉപയോഗിക്കണ ഉപയോഗിക്കുന്നതിനനുസരിച്ച് നമുക്കെന്നും അലക്കണ്ട ആവശ്യം വരുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണെങ്കിലും കുറെയൊക്കെ വെള്ളം നമുക്ക് ഉപയോഗിക്കാതിരിക്കാൻ പറ്റില്ല മാക്സിമം വെള്ളം പാഴാക്കാതെ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഹൈ റേഞ്ചിലെ അല്ലെങ്കില് നമ്മുടെയൊക്കെ ഒരു ലക്ഷ്യം കാരണം ഇനിയുള്ള വരും കാലങ്ങളില് വെള്ളത്തിനൊക്കെ ധാരാളം ബുദ്ധിമുട്ടുള്ള ഒരു സമയം ആയതുകണ്ട് വേനൽക്കാലമൊക്കെ വരുമ്പഴത്തേനും ആൾക്കാര് ഒരുപാടധികം സൂഷിക്കുന്നുണ്ട് വെള്ളം അധികമായിട്ട് കളയാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് പിന്നെ പണ്ടൊക്കെ ആണേൽ കൂട്ടുകുടുമ്പം ആയതുകൊണ്ട് ഒരുപാട് തുണികള് വരും പെന്നെ ഒരുപാട് അലക്കാനുള്ള ഒരു ആൾക്കാരുടെ എണ്ണം അനുസരിച്ച് നമുക്ക് കൂടുതലായിട്ട് അലക്കണ്ടതൊക്കെ ആയിട്ട് ആവശ്യങ്ങള് വരും ഇപ്പഴത്തെ ഈ അണുകുടുംബം ആയതുകൊണ്ട് നമുക്കധികം വരുന്നില്ല പിന്നെ ഉദ്യോഗസ്ഥരും പിന്നെ മറ്റ് കൃഷിപ്പണിക്കും തൊഴിലുറപ്പിനും പിന്നെ തോട്ടം പണികൾക്കുവൊക്കെ പോകുന്ന മേഖലയിലെ ആൾക്കാർക്ക് എല്ലാ ദിവസവും തന്നെ അലക്കാതിരിക്കാൻ പറ്റില്ല എങ്ങനെയാണെങ്കിലും വെള്ളം പാഴാക്കാതെ ഞങ്ങള് ശ്രമിക്കുന്നുണ്ട് എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് വെള്ളം അമൂല്യമാണ് ആ അമൂല്യമായ വെള്ളം സംരക്ഷിക്കേണ്ടത് അടുത്ത തലമുറയ്ക്ക് വേണ്ടിട്ട് ശേഖരിച്ച് അല്ലെങ്കിൽ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കടമയും ഉത്തരവാദിത്തവും നമുക്കുണ്ടല്ലോ അതുകൊണ്ട് അങ്ങനെ ഒരു ശ്രദ്ധയോടെയാണ് ഇപ്പോളുള്ള കാര്യങ്ങള് നമ്മള് കൈകാര്യം ചെയ്യുന്നത് അതുപോലെ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും നമ്മളതെപ്പറ്റി പറഞ്ഞ് കൊടുക്കുന്നുണ്ട് ജലം അമൂല്യമാണെന്നും അത് പാഴാക്കി കളയരുത് അതെന്ത് കാര്യത്തിനാണെങ്കിലും വസ്ത്രം അലക്കുന്നതിനാണെങ്കിലും അതുപോലെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് വീടുകളിലാണെങ്കിലും ഉപയോഗിക്കുമ്പോഴ് അമിതമായിട്ട് വെള്ളം പാഴാക്കരുതെന്ന് എല്ലാവരും പറയാറുണ്ട് പിന്നെ മറ്റ് സ്ഥലങ്ങള് ജോലിക്ക് പോകുന്ന കുട്ടികള് ഇപ്പം കണ്ടുവരുന്ന ഒരു പ്രത്യേകയാണ് അവര് എവിടെ ജോലി ചെയ്യുന്നു അവിടുന്ന് തിരിച്ച് വരുമ്പോഴ് അവരതും പാക്ക് ചെയ്ത് തിരിച്ച് നമ്മുടെ ഭവനങ്ങളിൽ കൊണ്ടുവരികയും അത് വീട്ടിലുള്ളവരെ ഏൽപ്പിക്കുകയും അവരത് ഉത്തരവാദിത്തോടെ വീട്ടിലുള്ള മാത അമ്മ അമ്മമാര് അത് വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് അലക്കി ഭദ്രമായിട്ട് കൊടുത്തു വിടുന്ന ഒരു രീതി നമ്മുടെ ഇടങ്ങളിൽ കാണുന്നുണ്ട് അങ്ങനെ മാക്സിമം എല്ലാവരും അതിന് ശ്രദ്ധിക്കുന്നു വെള്ളം പാഴാക്കാതിരിക്കാൻ അമ്മമാരെന്ന നിലയിലും നമ്മള് സാധാരണക്കാരെന്ന നിലയിലും ശ്രദ്ധിക്കുന്നു